നമസ്കാരം കൗസല്യ ട്രാവൽ ഏജൻസി അല്ലെ ഞാൻ നീതു ഇന്ന് രാവിലെ ഒരു രണ്ടുമണിക്ക് നിങ്ങളുടെ ട്രാവൽ ഏജൻസിയിൽ നിന്ന് ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു

ആം അതെ അതെ ഊട്ടിക്കുള്ള യാത്രയ്ക്കായിട്ട് അതേ പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ക്യാബ് ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല ശ്രദ്ധിക്കു ഇത് ഏഴുമണിയായി രാവിലെ ഏഴുമണിയായി രാവിലെ പുലർച്ച രണ്ടുമണിക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്ത ക്യാബ് ആണ് ഇതുവരെ എത്തിയിട്ടില്ല എന്തുകൊണ്ട് ആണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് ഞങ്ങളുടെ യാത്ര മുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ ഈ അനാസ്ഥ കാരണം ഞങ്ങളുടെ യാത്ര മുടങ്ങിയിരിക്കുന്നു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അല്ല പറയൂ നിങ്ങൾ തന്നെ പറയൂ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങളുടെ യാത്ര മുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ അനാസ്ഥ കാരണം ഞങ്ങളുടെ യാത്ര മുടങ്ങിയിരിക്കുന്നു ഇല്ല നിങ്ങൾ എന്താ പറഞ്ഞത് ആ ഡ്രൈവറിൻ്റെ പേര് മിഥുൻ ഭാസ്കർ നിങ്ങളുടെ ആപ്പിൽ നല്ല റിവ്യൂ ആണ് കൊടുത്തേക്കണേ നല്ല ഡ്രൈവറാണെന്നു പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് അവിടേക്കാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ വരെ ഇതുവരെ എത്തിയിട്ടില്ല ആൾ ഇതുവരെ എത്തിയിട്ടില്ല ഏഴുമണിയായി സമയം ഏഴുമണിയായി രാവിലെ ഏഴുമണിയായി ഡ്രൈവറെ ബുക്ക് ചെയ്തത് രണ്ടുമണി പുലർച്ച രണ്ടുമണിക്കാണ് പുലർച്ച രണ്ടുമണിക്ക് വേണ്ടിയാണ് ഇതുവരെ എത്തിയിട്ടില്ല ഞങ്ങൾ എന്തീയ്യണം ഇത് നിങ്ങളുടെ ഭാഗത്തുണ്ടായ അനാസ്ഥയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശ് തിരിച്ചു കിട്ടണം പിന്നെ നിങ്ങളുടെ വെബ്സൈറ്റിൽ ഞാൻ അത്രയും മോശമായ റേറ്റിംഗ് ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഇത് നിങ്ങൾ എന്ത് അനാസ്ഥയാണ് കാണിക്കുന്നത് ഞങ്ങളുടെ അത്രയും വിലപ്പെട്ട ഒരു സമയവും വിലപ്പെട്ട ഒരു യാത്രയാണ് നിങ്ങൾ കാരണം മുടങ്ങിപ്പോയത് നന്ദി